ഈ ശ്വാസം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ബ്രീത് കണ്ട്രോള് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പാട്ട് പാടുന്നതെന്നു പാട്ടു പാടുന്നതിൽ അതായത് നമ്മളിപ്പോൾ ഈ ഹൈ പിച്ച് പോലെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പം നമുക്കു ശ്വാസം കിട്ടാണ്ട് വരാതെയൊരവസ്ഥയിലേക്കു പോകും അല്ലെങ്കിൽ തൊണ്ട ഇടര്ന്ന പോലെയൊക്കെ വരും അപ്പോൾ നമ്മളതിനെ എന്താ ചെയ്യേണ്ടതെന്നു ചോദിച്ചെന്നാൽ ഈ യോഗാ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സാധകം ചെയ്യുക എന്നൊക്കെ പറയും സാധകം ചെയ്യുന്നെങ്കിലൊക്കെ നമ്മളോടു പ്രാണായാമമെന്നു പറയും അതായത് നമ്മൾ ശ്വാസം എടുക്കുകയും ശ്വാസം വലിച്ചു വിടുകയും ചെയ്യുന്ന ആ ഇത് അതുപോലെതന്നെ ഒത്തിരി ഹൈ പിച്ചിലൊക്കെ പാടി പാടി പാടി പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അതു കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്നു വെച്ചു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ വലിയ വലിയ ഹൈ പിച്ചെടുക്കുന്ന പാടുകൾ പാട്ടുകൾ പാടി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ തൊണ്ട വിറക്കുകയും ചെയ്യും അതെപോലെതന്നെ നമുക്ക് പയ്യെ പയ്യെ പയ്യെ നമുക്കാശ്വാസത്തെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അതിനെ കണ്ട്രോൾ ചെയ്ത് കണ്ട്രോൾ ചെയ്തു കൊണ്ടു വരാൻ പറ്റുകയും ചെയ്യും അപ്പം ഞാനൊക്കെ ചെയ്യുന്നേന്ന്പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മള് ക്ലാസിക്കല് മുസിക്കിന്റെ ഹൈ പിച്ചുള്ള ഒരു ഗാനങ്ങളൊക്കെ എടുത്തുപാടും അല്ലെങ്കിൽ സിനിമാ പാട്ടയിക്കോട്ടേ നമുക്കിപ്പം യേശുദാസിന്റെ തന്നെ പല ഹൈ പിച്ച് വരുന്ന പല പാട്ടുകളും നമ്മൾ കേള്ക്കാറുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഒരു കുറച്ചു നേരമത് പ്രാക്ടീസ് ചെയ്യുക ഒരു മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ദിവസേന നമ്മൾ ഓ ഒരു മണിക്കൂറുവെച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽത്തന്നെ പതിയെ പതിയെ അതുപോലെതന്നെ ഈ പ്രാണായാമവും അതും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനപ്രക്രിയ നമുക്ക് കൃത്യമായിട്ട് നമുക്കതൊന്ന് എന്താ കണ്ട്രോൾ ചെയ്ത് ഒരു നിയന്ത്രിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ പാട്ടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടു നമ്മുടെ ശ്വാസമെന്നു പറഞ്ഞാൽ ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യം കാരണം നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പം നമ്മുടെ തൊണ്ട ഇടരുകയും ചെയ്യും നമ്മുടെ ആ പാട്ട് നമുക്ക് പൂര്ണ്ണതയിലതൊക്കെ എത്തിക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വെച്ചത് നിന്നു പോകുന്നൊരവസ്ഥയിലേക്കായിരിക്കും പിന്നെ വരുന്നത് അപ്പോൾ നമ്മൾ പാട്ടു പാടുമ്പം കുറച്ചു നേരം ധ്യാനിക്കുക അല്ലെങ്കിൽ ശ്വാസം എടുക്കുക പിന്നെ വിടുക അങ്ങനെ കുറച്ചു നേരം ശ്വാസം പിടിച്ചു വെക്കാൻ നമ്മൾ നട്ടെല്ലു നിവര്ത്തി വെച്ചൊരിടത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ടു നമ്മൾ കുറച്ചു നേരം ശ്വാസം നല്ല രീതിയിൽ കണ്ണുകളൊക്കെ അടച്ച് ശ്വാസം മുകളിലേക്കെടുക്കുക അതു കഴിഞ്ഞു പയ്യെ ശ്വാസം പുറത്തേക്കു വിടുക നമ്മളെ തന്നെയൊന്നു സമാധാനപ്പെടുത്തി ഒന്നു റിലാക്സാക്കി വിടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാന് സാധിക്കുകയും ചെയ്യും നമ്മുടെ പാട്ട് പാട്ടിന്റെ ആണേൽ നം മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും